എൻ്റെ നാടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലത്തെക്കുറിച്ച് പറയാനാണെന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുക മരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് എൻ്റെ ഒരു പ്രദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഈ പാടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സമയത്ത് പാടമൊക്കെ നന്നായിട്ട് നിറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരുപാട് കാണാൻ നല്ല രസമാണ് അങ്ങനെ പ്രകൃതിയോട് കൂടുതലും ഇണങ്ങി നീൽക്കാനാണ് എനിക്കും എപ്പോഴും ആഗ്രഹം ഉള്ളത് അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കാഴ്ചകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ എന്താ പറയുക ഈ പക്ഷികളും മറ്റും വളർത്തുമൃഗങ്ങളൊക്കെ ഉള്ള ഒരുപാട് എന്താ പറയാ എല്ലാവരും എല്ലാ വീടുകളിലും വളർത്തുന്നതാണ് അപ്പോൾ അവരൊക്കെ ഈ ഒരു പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ഈ ജീവികളും മറ്റ് ജന്തുക്കളൊക്കെ നിൽക്കുന്ന എൻ്റെ ഒരു പ്രദേശം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്